ഇപ്പോൾ നമ്മുടെ മലയാളം മലയാള ഭാഷ നമ്മുടെ സംസ്കാരത്തെ നമ്മുടെ ജീവിത രീതിയെ നമ്മുടെ മുതിർന്ന അല്ലെങ്കിൽ മുൻപ് ജീവിച്ചിരുന്ന ആൾക്കാരെ നമ്മുടെ പാരമ്പര്യത്തെ അങ്ങനെ പല മേഖലകളിലും അല്ലെങ്കിൽ പല മേഖലകളെ നമുക്ക് നമ്മുടെ മലയാള ഭാഷയിലൂടെ പ്രകടിപ്പിക്കാൻ പറ്റും നമ്മൾ ജീവിക്കുന്ന രീതി നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലെ എന്താ പറയുക ആ ഒരു ആഠ്യത്വം അല്ലെങ്കിൽ ആ ഒരു നന്മ ആ ഒരു പക്വത അങ്ങനത്തെ പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഭാഷയെ നമ്മുടെ സ്വത്വം അല്ലെങ്കിൽ നമ്മുടെ സ്വത്വ ബോധം അതായത് നമ്മുടെ നമ്മൾ എന്താണ് നമ്മൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് നമ്മുടെ അച്ഛനമ്മമാർ എങ്ങനെയാണ് ജീവിച്ചിട്ടുണ്ടായിരുന്നത് നമ്മുടെ പാരമ്പര്യം എന്താണ് എന്നീ കാര്യങ്ങളെ ഒക്കെ നമ്മുടെ നമ്മുടെ രീതിയിൽ നമ്മൾ സംസാരിക്കുന്ന രീതിയിൽ നമ്മൾ നടക്കുന്ന രീതിയിൽ നമ്മുടെ പെരുമാറ്റത്തിൽ എല്ലാം കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും അതിൽ നമുക്ക് മലയാളഭാഷ വലിയൊരു പങ്കുവഹിക്കുന്നുണ്ട് നമ്മുടെ മുതിർന്ന ആൾക്കാർ എങ്ങനെയാണോ മലയാളഭാഷയെ കൃത്യമായിട്ട് അതിൻ്റെ മേന്മയും എന്താ പറയുക അന്തസ്സും കാത്തു സൂക്ഷിച്ച് കൊണ്ട് നടന്നത് അതുപോലെ ഇപ്പോൾ ഉള്ള തലമുറയും അതിൻ്റെ രീതിയിൽ അതേ തനിമയും കാര്യങ്ങളൊക്കെ കൊണ്ട് നിലനിർത്തികൊണ്ടുതന്നെ കൊണ്ടു പോകുന്നുണ്ട് അപ്പം നമുക്ക് പഴമ നമ്മടെ പഴമക്കാരുടെ പ്രശസ്തിയും പേരും നമുക്ക് നിലനിർത്താൻ പറ്റും അതോടൊപ്പം നമ്മുടെ മലയാള ഭാഷ ഉപയോഗിച്ചു കൊണ്ടാകുമ്പം നമുക്ക് കുറച്ചും കൂടി നമ്മുടെ എന്താ പറയുക ആ കാര്യങ്ങൾ കൂടുതലായിട്ട് നമുക്ക് അവരെ ബോധ്യപ്പെടുത്താനും പറ്റും